ഞാൻ കൂടുതലും എൻ്റെ വീട്ടിലിരുന്നാണ് വായിക്കാറുള്ളത് അതിൽ വായിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദം നമ്മുടെ റീഡിങ്ങ് റൂം അതായത് അന്തരീക്ഷത്തിലേക്ക് നല്ല വെട്ടം നമ്മുടെ റൂമിലേക്ക് കൂടുതൽ വെട്ടവും വെളിച്ചവും കേറത്തക്ക രീതിയിലുള്ള അന്തരീക്ഷമുള്ള ഇടമാണ് അതായത് റൂം ആണെങ്കിൽ വിൻഡോ നല്ല ഗ്ലാസ് ഇട്ട് വെട്ടം പ്രകാശം അകത്തേക്ക് കയറാൻ പറ്റുന്നതും നമ്മൾ വായിച്ച് ക കുറച്ച് ഒരു അരമണിക്കൂർ വായിക്കുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലെ പച്ചപ്പിലേക്ക് നോക്കി നമ്മുടെ കണ്ണുകളെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉള്ളതും ആയ സാഹചര്യങ്ങളിലിരുന്ന് വായിക്കാനാണ് കൂടുതൽ താല്പര്യം വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഒരു ഒത്തിരി വെളിച്ചം അല്ല ഒരു ആ ബുക്കിലേക്ക് വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ ഇരുന്ന് വായിക്കുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താൽപര്യം അത് ഒരു നമ്മളെ ആ വായിക്കുക എന്ന് പറയുന്നതുതന്നെ നമ്മളാ സാഹചര്യത്തിലേക്ക് ഇഴുകിച്ചേർന്ന് അതുമായിട്ട് ആസ്വദിച്ചാണ് നമ്മൾ വായിച്ചുപോകുന്നത് അപ്പം അത് കിട്ടാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് അൻ പകൽ സമയം നമുക്ക് അന്തരീക്ഷത്തിലേക്ക് ആ അന്തരീക്ഷവുമായിട്ട് ലയിച്ച് ചേർന്നിരുന്ന് വായിക്കുമ്പോഴുള്ളതാണ് ഒരു നല്ല സാഹചര്യമായിട്ട് ഞാൻ കരുത്